ഞാൻ എൻ്റെ സഹോദരിയുടെ മോന് വെണ്ടി ഒരു കമ്പിളി വസ്ത്രം അതായത് ജുബ്ബ ഷർട്ട് പോലുള്ള ഒരു സാധനം തുന്നുകയുണ്ടായി അത് വളരെയധികം കഷ്ട്ടപ്പെട്ടിട്ടാണ് ഞാൻ നെയ്തെടുത്തത് വളരെ സമയമെടുത്തു അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല പറ്റില്ലായിരുന്നു ഓരോന്നും ഓരോ തവണയും സുചി നൂലും കോർത്ത് കോർത്ത് വേണം അത് നെയ്തടുക്കാനായിട്ട് മാത്രമല്ല അതിൽ കുറച്ച് സിക്യുഎൻസ് ഒക്കെ വെക്കാൻ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഡിസൈൻ ചെയ്തത് അങ്ങനെ ആയിരുന്നു ആ സിക്യുഎൻസ് ഒക്കെ വെച്ച് തീർക്കാൻ അതായത് വളരെ ചെറിയ സിക്യുഎൻസ് ആണ് അത് ഓരോന്നും വെച്ച് പിടിപ്പിക്കാൻ എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായി